ഇപ്പോൾ മറ്റു സംസ്ഥാനത്ത് കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഉത്സവങ്ങൾക്കുള്ള വെടിക്കെട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ഇത് വേറെ സംസ്ഥാനങ്ങളിലങ്ങനെ അധികം കാണാനോ അനുഭവപ്പെടാനോ പറ്റാത്തൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മിക്ക അമ്പലങ്ങളിലും നമുക്ക് പേര് കേട്ട ഒരുപാട് വേലയും പൂരവും ഉള്ളൊരു സ്ഥലമാണ് കേരളം അപ്പോൾ അതൊക്കെ നോക്കുകയാണെന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ തൃശൂർ പൂരം നെന്മാറ വല്ലങ്കി വേല ഉത്രാളിക്കാവ് വേല പിന്നെ ചെനക്കത്തൂർ പൂരം ആറ്റിങ്ങല് വെടിക്കെട്ട് അങ്ങനെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ നമ്മുടെ വെടിക്കെട്ടുകളും കാണാം നമുക്ക് നമ്മുടെ സ് നമുക്ക് നമ്മുടെ എന്താ പറയുക കേരളത്തില് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഇങ്ങനത്തെ ആഘോഷ പരിപാടികളില് വെടിക്കെട്ടോ അല്ലെങ്കിൽ പാണ്ടിമേളം പഞ്ചാരിമേളം ചെണ്ട അങ്ങനത്തെ ഈ ഐറ്റംസ്സ് അങ്ങനെ അതൊന്നും പുറത്തു പോയാൽ നമുക്കങ്ങനെ അധികം കാണാൻ പറ്റില്ല നമ്മുടെ ഈ കേരളത്തിൽനിന്ന് പുറത്ത് പോയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് കാണുന്നയത്ര അത്രയും ഇത് വേറെ എവിടെയും ഇതിനെ കാണാൻ പറ്റില്ല